ഉൾനാടുകളും പട്ടണത്തിലും ഉള്ള കളികൾ തമ്മിൽ എന്താണ് വ്യത്യാസം ഈ ഉൾപ്രദേശത്തുള്ള കളി വരുമ്പം ഉള്ളൊരു നാടൻകളി ടൈപ്പായിരിക്കും ലൈക്ക് കൊട്ടി മുള്ള് ഗോട്ടി കളികൾ അങ്ങനത്തൊരു കളികളെല്ലാമായിരിക്കും ഈ ഉൾനാട്ടിൽ ഉൾപ്രദേശത്തുള്ള കളികൾ അല്ലാണ്ട് ഈ സിറ്റീസ് അങ്ങനത്തുള്ള പട്ടണത്തിലുള്ള ഒരു കളികൾ പറയുമ്പോൾ ശരിക്കൊരു ഇതുപോലെയിരിക്കും ഫുട് ബോൾ നമ്മളുടെ ക്യാരംസ് ഇതൊക്കെ വേണമെങ്കിൽ പറയാം ഫുട് ബോൾ ക്രിക്കറ്റ് ഹോക്കി അങ്ങനത്തെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഹൈ ലെവലുള്ള ഒരു കളികളായിരിക്കും അല്ലാണ്ട് ഈ ഉൾപ്രദേശത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയും മുള്ള് അതേപോലെ ടയർ വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടുക മറ്റേ ഗോട്ടിക്കളി പമ്പരം തിരിപ്പിക്കുക അങ്ങനത്തെയുള്ളൊരു കളികളാണ് ഉൾപ്രദേശത്തിൽ അതാകുമ്പോൾ ഒരു നാടൻകളി അവർക്കത്രയേ ഹാൻഡിലും ചെയ്യാൻ പറ്റുള്ളൂ ഫിനാൻസായിരിക്കാം പൈസയുടെ കാര്യങ്ങളായിരിക്കുക പൈസയുടെ കാര്യങ്ങളാളായിരിക്കാം അങ്ങനെ പലതും ഉണ്ടാകും അങ്ങനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവരുടേതായിട്ടുള്ളൊരു കളി ഇതൊക്കെയാണ് കൂടുതലും കാണാൻ കാണപ്പെടുന്ന കുറ്റിയും കോലും പമ്പരമൊക്കെയാണ് വേറെ ഇപ്പോ പൊറത്തക്കെയാണെങ്കി പട്ടണത്തില് പറയുമ്പോ സ്റ്റാൻഡേർഡ് കൂടിയ ക്യാരംസ് ക്യാരംസ് പോളോ അങ്ങനത്തെയുള്ള കളികൾ ചെസ്സ് പിന്നെ ക്രിക്കറ്റ് ഫുട് ബോൾ അങ്ങനത്തെയുള്ള കളികളായിരിക്കും കൂടുതൽ കളിക്കുകയുണ്ടാവുക പിന്നെ ഇതിനൊക്കെ ഒരുപാട് ചിലവും അവരൊക്കെ ഓരോ സിറ്റീസാണ് അ അങ്ങനെയുള്ള ചിലവ് കൂടുത കൂടുതലായിരിക്കും ഓരോ ടർഫ് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അവർ മിക്കവാറും കളിക്കുന്നുണ്ടാവുക